എൻ്റെ ലൈഫില് ഞാനിതുവരെ നേരിട്ടൊരു സുപ്രധാന എടുത്തൊരു സുപ്രധാന തീരുമാനം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഏത് കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ഇതായിരുന്നു അത് ഒരുപാടുപേരുടെ ഉപദേശം ഞാൻ തേടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു എനിക്ക് ഇത് ഈ കോഴ്സ് എടുത്താൽ മതി ആ കോഴ്സ് എടുത്താൽ മതി പക്ഷേ എനിക്ക് തോന്നിയത് നമ്മൾ നമുക്ക് താല്പര്യമുള്ള ഒരു കോഴ്സ് എടുത്തു പഠിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ഒരുപാടുപേരുടെ ഇതാക്കി നമ്മൾ ഒരു ജോലി സാധ്യതയുള്ള കോഴ്സ് ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ നമുക്ക് ബെനിഫിഷ്യലായിട്ടുള്ള ഒരു കോഴ്സ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരുപാട് കോഴ്സ് നമ്മൾ അന്വേഷിച്ചു പല ഇപ്പോൾ ഓൺലൈനിലായാലും അങ്ങനെ കുറേ നോക്കി എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്തത് ബിടെക് ആണ് പക്ഷേ എനിക്ക് തോന്നി എനിക്ക് ചേരുന്നതിനുള്ള എനിക്ക് എന്നെക്കൊണ്ടത് പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നിയ കോഴ്സ് അതാണ് ബിടെക് മെക്കാനിക്കലാണ് ഞാൻ സെലക്ട് ചെയ്തത് ഇപ്പം ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു അത് എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഒരു സക്സസ്സായിട്ട് ആ തീരുമാനം ഞാൻ എടുത്തുവെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആ അതുകൊണ്ട് ഞാൻ അത് തുടർന്നുപോകുന്നു അത് ഞാൻ വിജയകരമായി പൂർത്തീകരിച്ചു ആ ഒരു സന്ദർഭം എനിക്ക് ലൈഫിൽ നേരിടേണ്ടി വന്നു പക്ഷേ ഒരുപാടുപേരോട് നമ്മൾ ഉപദേശം തേടുമ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഒരു പരിധിവരെ ആണ് നമുക്ക് അത് കാര്യത്തിൽ എടുക്കാൻ പറ്റുള്ളൂ കാരണം ബാക്കിയെല്ലാം നമ്മളാണ് അത് അനുഭവിക്കേണ്ടതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സായാലും ആഫ്റ്റർ എഫക്ട്സ് എന്തായാലും നമ്മൾ നമ്മളാണത് അനുഭവിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചു വേണം നമ്മൾ എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും എടുക്കാൻ അല്ലാതെ മറ്റുള്ളോരു പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്തുകഴിഞ്ഞാൽ അത് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സില് നമ്മൾ മാത്രമേയുണ്ടാവുകയുള്ളൂ അവർ നമ്മളെ ഒരു ഹെല്പ് സഹായത്തിനും ആരും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ശരിയെന്നു തോന്നിയതു മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ മറ്റുള്ളവർക്ക് ശരിയെന്ന് തോന്നിയത് ചെയ്യാൻ നമ്മളൊരിക്കലും നിന്നാൽ പിന്നെ നമ്മുടെ ജീവിതം വേസ്റ്റായിപ്പോവും എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് എന്നും നമ്മൾ മാത്രമാണ് നമുക്കുണ്ടാവുള്ളൂ അതിപ്പോൾ ആരായാലും എത്ര സുഹൃത്തുക്കളായാലും രക്ഷിതാക്കളായാലും എല്ലാവരും ഒരു പരിധിവരെത്തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവുള്ളൂ നമ്മൾ വേണം നമുക്ക് പറ്റിയത് ചെയ്യാൻ അല്ലാതെ മറ്റുള്ള ആരെക്കൊണ്ടും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇതിന് വേണ്ടീട്ട് നമ്മളായിരിക്കണം ഏറ്റവും ഇതിൽ ഇൻവോൾവ് ചെയ്യേണ്ടതും എന്ത് എല്ലാ റിസോഴ്സുകളും എന്തിനുവേണ്ടിയുള്ള എല്ലാ നമ്മൾ തീരുമാനമെടുക്കാനുള്ള എല്ലാ ശരിയും തെറ്റും ഒക്കെ അന്വേഷിക്കേണ്ടത് നമ്മളാണ് മറ്റുള്ള ആരുമല്ല മറ്റുള്ള ആരും നമുക്കുവേണ്ടി ചെയ്യാനും തയ്യാറാവില്ല ആത്മാർഥമായിട്ട് നമ്മളുവേണം നമ്മുടെ കാര്യം നോക്കാനും നമ്മുടെ തീരുമാനം സംരക്ഷിക്കാനും ആ തീരുമാനം എടുത്തുകഴിഞ്ഞാൽപ്പിന്നെ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം ഒരു മാറ്റവും വരാൻ പാടില്ല കാരണം നമ്മളാണ് തീരുമാനം എടുത്തത് അത് ഏറ്റവും വിജയകരമായിട്ടത് നമ്മൾ ഫിനിഷ് ചെയ്യാൻ അത് പൂർത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ തീരുമാനം അത്രയും വിലപ്പെട്ടതാക്കിയും നമുക്ക് മാറ്റാൻ പറ്റണം അതാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്നും ആലോചിക്കേണ്ടത് അത് ഇപ്പോൾ ഞാൻ ചെയ്ത ഒരു കാര്യം മാത്രമല്ല ഇനി എൻ്റെ ലൈഫിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഞാൻ അത്രയും ഇതായിരിക്കണം എന്നാലാണ് നമുക്ക് ബാക്കി നമ്മുടെ ലൈഫ് സക്സസ് ആവുകയും എല്ലാം ചെയ്യുള്ളൂ കാരണം എല്ലാം നമ്മുടെ തീരുമാനങ്ങൾ ആണ് നമ്മൾ ചെയ്യുന്നതും നമ്മളെടുക്കുന്നതും എല്ലാം പിന്നെ പല തീരുമാനങ്ങളും എൻ്റെ ലൈഫിൽ ഞാൻ ഇനിയും എടുക്കാൻ ഉള്ളതാണ് അതിൻ്റെ എല്ലാം എനിക്കൊരു ഒരു എക്സ്പീരിയൻസായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ഇത് എല്ലാം എനിക്ക് ഇമ്പോർട്ടൻറ്റായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു വേറെ ഒരു തീരുമാനം ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ഇമ്പോർട്ടാൻറ്റായിട്ട് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല അതിനുള്ളൊരു എക്സ്പീരിയൻസായിട്ട് ഇതിനെ കാണുന്നു നമ്മൾ ഒരു തീരുമാനം എടുത്തുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് സക്സസ്സാവും എന്നായിരിക്കും നമ്മുടെ വിചാരം പക്ഷേ നമ്മളതിനുവേണ്ടി മാത്രം അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെയാണ് നമുക്ക് ഒരു സക്സസ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ കാരണം ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട് നമ്മുടെ ഈ ഇന്നത്തെ സാഹചര്യം ഇന്നത്തെ വേൾഡ് അത്രയും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അത്രയും സ്കിൽ ഉള്ളവർക്കും മാത്രമാണ് ഇന്നത്തെക്കാലത്ത് ഒരു ജോലി ആയാലും വേറെ എന്ത് ആയാലും നമുക്ക് പെട്ടെന്ന് ലഭിക്കുള്ളൂ പക്ഷേ ഇത് ഒന്നും ഇന്ന് നടക്കുന്ന ഒരു സാഹചര്യം അല്ല ഇപ്പോൾ നിലവിലുള്ളത് അപ്പം നമ്മൾ തീരുമാനങ്ങൾ എത്രയും ഉറച്ചതായിരിക്കുകയും വേണം അതുമല്ല നമുക്ക് നമ്മുടെ പൂർണ്ണ വിശ്വാസം അതിലുണ്ടായിരിക്കണം ഒരിക്കലും ഒരു വിശ്വാസം ഇല്ലാതെ ഒരു തീരുമാനം എടുത്തുകഴിഞ്ഞാൽ അതൊരിക്കലും സക്സസ്സാ വിജയിക്കില്ലായെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മുടെ നമുക്ക് അത്രയും വിശ്വാസം നമ്മൾ ആത്മാർത്ഥതയോടെ എടുക്കുന്ന തീരുമാനത്തിൽ മാത്രമേ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും എല്ലാം ചെയ്യുള്ളൂ എന്നാൽ മാത്രമാണ് അത് സക്സസ്സ് ആവുള്ളൂ ഇല്ലെങ്കിൽ അത് ഫ്ലോപ്പായിത്തന്നെ പോവാനാണ് ചാൻസ് അപ്പോൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഏറ്റവും നന്നായി ആലോചിക്കുക സമയമെടുത്ത് ആലോചിക്കണം എന്നിട്ട് അതിനു ശേഷം മാത്രമാണ് ഒരു അതിപ്പോൾ ഒരു യെസ് ആണെങ്കിൽ യെസ് അങ്ങനെ പറയാൻ നമുക്ക് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ടുള്ള കാര്യം ഒരു ഡിസിഷൻ മേക്കിങ് സ്കിൽ നമുക്ക് ഉണ്ടായിരിക്കണം എന്നാ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ബാക്കി ഒരു സക്സസ്സ് ആവുകയുള്ളൂ എല്ലാം നടക്കുകയുള്ളൂ